നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് കുമരകം കുമരകത്ത് ബോട്ടിംഗ് ഉണ്ട് ഹൗസ് ബോട്ട് യാത്ര അതുപോലെ തന്നെ ഫുഡ് അതുപോലെ തന്നെ വേമ്പനാട്ട് കായലില് കൂടെ ഹൗസ് ബോട്ടെൽ നമുക്ക് ആലപ്പുഴ ഒരു ഫുള് ഡെ നമുക്ക് കറങ്ങാന് സാധിക്കും മെയിനായിട്ടും ഇത് വിനോദസഞ്ചാരികളെ ആകര്ഷിക്കുന്നത് ഫുഡ് ഈ യാത്ര കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്നു ദിവസം വിനോദസഞ്ചാരിക്കള്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ നാല് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് തങ്ങി കണ്ട് അവര്ക്ക് മനസ്സിൽ എപ്പോഴും ഓര്മ്മയില് സൂക്ഷിക്കാന് പറ്റുന്ന രീതിയിലുള്ളൊരു അനുഭൂതി കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കുമരകം എന്ന് പറയുന്നത് കരിമീനും കപ്പ മീന് കറി ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഹൗസ് ബോട്ടേലുള്ള യാത്ര വേമ്പാനാട്ടു കായലിലുള്ള യാത്രയൊന്നും വരുന്ന ആര്ക്കും എന്താ പറയുക മറക്കാന് സാധിക്കാത്ത തരത്തിലുള്ള അനുഭൂതി നൽകുന്ന സലം തന്നെയാണ് തീര്ച്ചയായിട്ടും കുമരകം നമ്മുടെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാല് ഗോഡ്സ് ഓണ് കന്ട്രിന്ന് കേരളം പറയുന്നതിൻറ്റകത്ത് തന്നെ കാണിക്കുന്നത് തന്നെ നമ്മുടെ വേമ്പാനാട്ടു കായലും കുമരകവും ഒക്കെ തന്നെയാണ് നമ്മളെ ഇമേജിന്റാത്ത് തന്നെ വെച്ചേക്കുന്നത് അതുകൊണ്ട് എന്റെ അടുത്തുള്ള സ്ഥലം ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ കുമരകം ഞാൻ എത്ര തവണ പോയിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓര്മ്മയില്ല അതുപോലെ ഞാന് ഒത്തിരി തവണ പോയിട്ടുള്ളതും ഫുഡ് കഴിക്കുയകും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ്